എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ കറി വയ്ക്കാനാണ് അതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിരുന്നത് ഇപ്പം ആരെങ്കിലും ഇപ്പം വിരുന്നുകാരൊക്കെ വരുമ്പം നമ്മൾ സദ്യ ഒരുക്കാൻ നിന്നാൽ പോട്ടെ ഒരു സാമ്പാർ വയ്ക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ചോറും സാമ്പാറും ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനിപ്പം പപ്പടം വേണം എന്തെങ്കിലും ഒരു തോരൻ വേണം അങ്ങനെ ഒക്കെ വയ്ക്കണം ഇ ഇപ്പോൾ ചിക്കൻ കറി ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ചിക്കൻ കറി മാത്രം മതി പിന്നെ അത് ഉണ്ടാക്കാനും എളുപ്പമാണ് അതായത് ഇപ്പം ചിക്കൻ ഒക്കെ മേടിച്ചിട്ട് ആരെങ്കിലും വരും എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ അവർ ചിക്കൻ മേടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല ഒക്കെ റെഡി ആക്കി വയ്ക്കാം അതായത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ അരച്ച് വയ്ക്കാം പിന്നെ അതായത് തക്കാളി ഉള്ളിയൊക്കെ നല്ല വാട്ടി അതിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇട്ട് ചിക്കൻ പൊടി മഞ്ഞപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി അങ്ങനെ ഉള്ള പൊടികളൊക്കെ ഇട്ട് നല്ലവണ്ണം വരട്ടി എടുത്ത് വയ്ക്കാം പിന്നെ അവർ വരുമ്പം നമുക്ക് ആ ചിക്കൻ നല്ലവണ്ണം കഴുകി മഞ്ഞപ്പൊടി ഉപ്പും മുളകുപൊടിയും ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇളക്കി നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി റെഡി ആവും ചിക്കൻ കറി അതുകൊണ്ടാണ് എനിക്ക് ചിക്കൻ കറി ആണ് ഏറ്റവും ഇഷ്ടം വയ്ക്കാൻ